നാടോടി നൃത്തങ്ങളെക്കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ വളരെയധികം സഹിഷ്ണുത മനസ്സോടുകൂടി കളിക്കുന്ന വളരെയധികം മുദ്രകളോടും മുദ്രഭാവങ്ങളോടും കൂടി കളിക്കുന്ന ഒരു കലയാണ് നാടോടിനൃത്തം എന്നു പറയുന്നത് ബോളി നാടോടി നൃത്തത്തിൽ നിന്നും ബോളിവുഡിലേക്ക് വരികയാണെങ്കിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് വസ്ത്രധാരണത്തിലാണെങ്കിലും കേരളത്തനിമ മുഴുവനായിട്ട് നിൽക്കുന്ന ഒരു കലയാണ് നാടോടി നൃത്തം ബോളിവുഡിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോഴത്തെ സാംസ്കാരിക തലവുമായിട്ട് രമ്യതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ക്ലാസിക്കൽ നൃത്തം എന്നു പറയുമ്പോൾ വളരെയധികം നൃത്ത കലകളോടും കേരളത്തനിമകളോടും പലവിധ കാര്യങ്ങളോടുമായിട്ട് സാദൃശ്യപ്പെട്ട് കിടക്കുന്നു പലവിധ മുദ്രകളും പലവിധ ആ ആംഗ്യഭാവങ്ങളും കാണിച്ചുകൊണ്ട് കലാമേഖലയെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ക്ലാസിക്കൽ നൃത്തത്തിന് സാധിക്കുന്നു എന്നതിലാണ് നമുക്ക് എടുത്തു പറയാനുള്ളത് ക്ലാസിക്കൽ നൃത്തം എന്നു പറയുന്നത് വളരെയധികം കാലത്തെ കഠിന പരിശ്രമത്തിലാണ് അവിടെ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നത്